ഈ ട്രാവലിനെക്കുറിച്ച് പറയണമെങ്കിൽ ട്രാവൽ ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഓഫ് ദ ഓൾ പ്രോബ്ലംസ് അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ പുതിയ സ്പേസൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു മൈൻ്റ് സെറ്റ് ആകണമെന്നില്ല കുറേ അങ്ങനെ എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രാവലിങ്ങെന്നു പറയുമ്പോൾ ഓരോരോരാളുടെ ട്രാവൽ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ആണ് നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ പഠിക്കുന്നത് ഒരു ഈ ഒരു ഇന്ത്യയിൽ ഇത്രത്തോളം ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു ട്രാവൽ ബ്ലോഗെന്നൊക്കെ വെച്ചിട്ടാണ് അതു പോലെ തന്നെ ഈ ബോളിവുഡ് ന്യൂസൊക്കെ ബോളിവുഡ് ന്യൂസ് എന്നു പറയുമ്പോൾ ബോളിവുഡ് എന്നു പറയുമ്പോൾ മൊത്തത്തിൽ ആക്ടിങ്ങ് എന്നൊരു ഫീൽഡ് മാത്രമേയുള്ളൂ അപ്പം ഈ ആക്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോളിവുഡ് ന്യൂസിൽ നിന്ന് നമ്മൾ അറിയാൻ പറ്റും അതായത് ബോളിവുഡിൽ ഒരു പുതിയ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഇൻട്രഡ്യൂസ് ആകാണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നതൊക്കെ ഈ ബോളിവുഡ് മൂവീസിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ ബോളിവുഡ് മൂവീസെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അടുത്തെ ഇവിടെ മലയാളം മൂവീസും ബോളിവുഡ് മൂവീസും തമ്മിൽ കുറേ ഡിഫറൻസുണ്ട് അതായത് ഈ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഏതു ലാംഗ്വേജ് ഇനി ആയിക്കോട്ടെ എല്ലാം സേം ഒരു തീം ബേസ് ചെയ്തിട്ടായിരിക്കും മൂവിസെടുക്കുന്നത് അപ്പം ഇങ്ങനത്തെയൊക്കെ എടുക്കുന്ന മൂവീസിൽ ബോളിവുഡ് മൂവീസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ കുറേ കുറേ കൂടുതലായിട്ട് ഫൈറ്റായാലും ഓരോരോ എക്സ്പ്രഷനായാലും അത് കുറേ കൂടുതൽ എക്സ്പ്രഷൻസൊക്കെ അവർ കൊടുക്കാറുണ്ട് പിന്നെ ഈ ബോളിവുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോളിവുഡിൽ ബോളിവുഡ് ആക്ടേഴ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരും പുറത്തറിയാറില്ല പിന്നെ എനിക്ക് ബോളിവുഡ് മൂവിസൊക്കെ ഇഷ്ടമാണോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് എനിക്ക് കൂടുതലായിട്ട് പുറത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയണം അതായത് ഓരോരോ മൂവീസൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പ്സാണ് സോ എനിക്ക് ഓൾ ടൈപ്പ് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് എല്ലാം കൂടി മിക്സായിട്ട് വരുന്ന ഒരു തീമും ഐ ഫൈറ്റും ലവ്വും കെയറിങ്ങും കോമഡിയൊക്കെ മിക്സായിട്ട് വരുന്നതാണ് പക്ഷെ മോസ്റ്റ് ഓഫ് ഹോളിവുഡ് മൂവീസിലൊക്കെ ഈ കോമഡീസൊക്കെ ഇൻക്ലൂഡാകാറില്ല അത് മെയിൻ ബെയ്സ് ഫൈറ്റ് റേയ്സിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും ആ ഒരു ബോളിവുഡ് മൂവിയിൽ വരുന്നത് പിന്നെ എനിക്ക് എങ്ങനത്തെ ബോളിവുഡ് മൂവിസൊക്കെ ഇഷ്ടമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നത് ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം